ജോലി സ്ഥലത്തുള്ള സംഘർഷങ്ങളും പ്രയാസകരമായ സാഹചര്യ പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അവ നമ്മൾ ശാന്തമായി തന്നെ ഹാൻഡിൽ ചെയ്യും കാരണം മൈൻഡ് സ്ട്രെസ്സായിട്ടിരിക്കുന്ന ശല്യമായി ഇരിക്കുന്ന സമയത്തു കൊണ്ടുപോയി വല്ലതും പറഞ്ഞാച്ചാൽ അത് എല്ലാവരെയും ബാധിക്കും സോ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ അത് ശാന്തപരമായ രീതിയിൽ കാര്യങ്ങൾ മൈൻഡ് റിലേക്സസായ ശേഷം ഇരുന്ന ഇല്ലെങ്കിൽ ആലോചിച്ചു അല്ലേ അതിനു വേണ്ട മുൻകരുതലുകളോ അല്ലെങ്കിൽ തയ്യാറെടുപ്പോ നടത്താവുന്നതാണ് സംഘർഷ ഘട്ടങ്ങളിൽ ഇങ്ങോട്ടെങ്ങനെയാണോ ഒരു വ്യക്തി അങ്ങോട്ടും അതുപോലെ പ്രതികരിക്കുക എന്നല്ലാതെ വേറൊന്നും ഇല്ല വല്ലാത്ത പ്രയാസകരമായ സാഹചര്യങ്ങൾ നമ്മൾ റിലേക്സ് മൈൻഡ് റിലേക്സാക്കി കാര്യങ്ങൾ ചിന്തിച്ചു ചെയ്യുകയാണ് പതിവ്

സോ അങ്ങനെ ചെയ്യാനാണ് കൂടുതലും ചാൻസ് പിന്നെ ജോലി സ്ഥലത്തു ഇതുപോലെയുള്ള ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കാനും ശ്രമിക്കുക അതുപോലെ തന്നെ അവിടെ ഉണ്ടാകാറുള്ള ഉണ്ടാകാനും ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തൊരു വിഷയത്തെ കുറിച്ചു ചിന്തിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല